കുറച്ചധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ വിദ്യഭ്യാസത്തിനെക്കാളും ഇപ്പോൾ കുട്ടികള്ക്ക് ഡി റ്റി പി സംവിധാനം ഉണ്ട് പിന്നെ അതുപോലെ സ്മാര്ട്ട് ക്ലാസ്സുകള് വന്നു പണ്ടാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല പണ്ട് വളരെ പണ്ട് ആണെങ്കില് ഗുരുകുല വിദ്യാഭ്യാസം ആണ് ഉണ്ടായിരുന്നത് ഗുരുവിന്റെ അടുത്ത് പോയി പിന്നെ ശിക്ഷണം തീരുന്നതുവരെ ഗുരുവിന്റെ അടുത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു രീതി ഇപ്പോള് ആണെങ്കിൽ സ്കൂളുകളും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വന്നു പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പിന്നെ ഗുരുകുലത്തിന് ശേഷമുള്ള കുറച്ച് കഴിഞ്ഞിട്ടുള്ള ശേഷം കാലഘട്ടത്തിലെ ആള്ക്കാരൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കുട്ടികളെ ചേർത്തത് കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് പഠിച്ച കുട്ടികള്ക്ക് കൂടുതല് ഇംഗ്ലീഷിനെക്കുറിച്ച് വിവരം നൽകുന്നതിനും ഇപ്പോൾ കുറച്ച് കുറച്ച് വിവരം കൂടുതല് ലഭിക്കുന്നതിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനേക്കാളും മെച്ചപ്പെട്ടതായി സര്ക്കാര് വിദ്യഭ്യാസം അതുകൊണ്ട് പകുതി ആൾ അതായത് സർക്കാർ സ്കൂളിലേക്കാണ് കുട്ടികളെ ചേര്ക്കുന്നത് പിന്നെ ഉച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ പണ്ടെത്തെപ്പോലെയുള്ളതല്ല അവിടുത്തെ ഭക്ഷണരീതി ഇപ്പം ചോറ് വന്നു ചോറിന് ആവശ്യമായ കറികൾ അത് കൂടാതെ എല്ലാം പിന്നെ ഓരോ ദിവസം കൂടുമ്പോൾ ഇവര്ക്ക് മുട്ടയും പാലും എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സര്ക്കാര് സ്കൂളാണ് ഏറ്റവും കൂടുതല് മെച്ചം എന്ന് തന്നെ പറയാം പിന്നെ എന്റെ പ്രദേശത്താണെങ്കിൽ കുറേ സര്ക്കാര് വിദ്യാലയങ്ങള് ഉണ്ട് അതുകൂടാതെ എഞ്ചിനീയർ കോളേജ് ഉണ്ട് പിന്നെ പി നല്ല പി എസ് സി കോച്ചിംഗ് സെന്റർ ഉണ്ട് നമ്മുടെ പി എസ് സി ഏറ്റവും നല്ല നമ്മുടെ പ്രദേശത്തിലെ ഏറ്റവും നല്ല പി എസ് സി കോച്ചിംഗ് സെന്ററാണ് പ്രകൃതി പ്രകൃതി കോളേജില് പഠിച്ച എല്ലാവർക്കും നൂർക്കുനൂറ് വിജയമാണ് അവിടെയുള്ളത് അതുകൊണ്ട് സര്ക്കാര് സ്കൂൾ ഇപ്പം കുടൂതല് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം